ആ കോഴി വളര്ത്തലിൽ നമുക്ക് അറിയാം പനി അതുപോലെയുള്ള രോഗങ്ങളൊക്കെ പിടിക്കുമ്പോൾ കോഴിയെ ഒന്ന് ഒരു പനി വന്ന ഒരു കോഴിയെ ഒരിക്കലും മറ്റുള്ള പനി കോഴികളുടെ കൂടെ നിന്ന് പെട്ടെന്ന് ലക്ഷണം കണ്ടാൽ ഉടനെ മാറ്റുക അതുപോലെ തന്നെ പനി വന്നിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റി ഇട്ടിട്ട് അതിന് വേണ്ട ആദ്യം ആദ്യമേ തന്നെ കോഴിക്ക് പ്രതിരോധ കുത്തിവെപ്പ് കൊടുക്കുക ഇനി ഇതിന്റെ പനിയുടെ ലക്ഷണം കാണുമ്പോഴേ നമ്മൾ കോഴിയെ ആ പനി വന്ന കോഴിയെ അതില് നിന്ന് മാറ്റുക പിന്നെ പനി വന്ന കോഴിക്ക് നമ്മുടേതായ വീടുകളിൽ ഉള്ള മഞ്ഞൾ വെള്ളമോ അങ്ങനെ ഉള്ളവയെ കൊടുക്കുക ഇതും കൊണ്ടും മാറുന്നില്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ സമീപിച്ച് മൃഗ ഹോസ്പിറ്റലിലെ മൃഗ സംരക്ഷണ വകുപ്പിലെ ഡോക്ടര്മാരെ സമീപിച്ച് അവർ പറയുന്ന മരുന്നുകൾ സമയബന്ധിതമായി പൂര്ണ്ണമായിട്ടും കൊടുക്കുക എത്ര ദിവസം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത്രയും ദിവസവും മരുന്ന് സമയബന്ധിതമായിട്ട് കൊടുക്കുക ഇത് വാ പോം ഇതില് നിന്ന് രക്ഷപ്പെടാന് സാധിക്കും